എനിക്ക് എൻ്റെ അനുഭവം പറയാനാണെങ്കിൽ എന്താണ് എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ ക്യാമ്പിനെ പറ്റിയാണ് എനിക്ക് പറയാറുള്ളത് അത് ഞങ്ങൾ കുട്ടികളൊക്കെ ചേർന്നു കൊണ്ട് കുറേ കളികളൊക്കെ നടത്തീനി അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഒരു മലയിൽ ഞങ്ങൾക്ക് മലയിൽ പോവേണ്ട ഒരു ആവശ്യം വന്നു അങ്ങനെ അവിടെ കുറേ കളികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമുക്ക് ആ മലയിലത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റി അപ്പുറത്തുള്ള വേറെ ഒരു വലിയ മല കാണാൻ പറ്റി പിന്നെ ഇവിടുത്തെ മലയിലെ തന്നെ കുറേ വ്യത്യസ്ത രീതീയിലുള്ള മരങ്ങളും പക്ഷികളൊക്കെ കാണാൻ പറ്റി പിന്നെ ചില ജീവികളുടെ കാൽപ്പാടുകളൊക്കെ കാണാൻ പറ്റി അതൊക്കെ ഒരു നല്ല രസായിരുന്നു പിന്നെ വീട്ടിലത്തെ കുടുംബത്തിലൊക്കെ ഒപ്പം ഞങ്ങൾ വയനാട്ടിൽ പോയി അവിടെ തന്നെ കുറേ ഊര് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നമുക്കങ്ങോട്ട് പോകണമെന്നുണ്ടങ്കിൽ വണ്ടിയിലും പോകാം പിന്നെ നടന്നും പോകാം ഞങ്ങൾ അത് ഒരു രസമാക്കി എടുത്തു നടന്നിട്ടാണ് പോയത് പിന്നെ അവിടെ കുറേ കുടിലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ പറ്റി പുറത്ത് ഒരു നമ്മുടെ എതിർ ഭാഗത്ത് വരുന്ന ഒരു മലയെ കാണാൻ പറ്റി അവിടെയുള്ള വെളളച്ചാട്ടം അതൊക്കെ കാണാൻ പറ്റി അപ്പം കായിക വിനോദങ്ങളാണ് ഈ മൂന്നാർ പിന്നേ വയനാട് അതുപോലെ തന്നെ നെല്ലിയാമ്പതിയൊക്കെ നെല്ലിയാമ്പതീലൊക്കെ നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ മൂന്നാറിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് വിനോദങ്ങൾ